ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് പൊതുവായിട്ടും നിരന്തരം വഴി സ്കൂളിൽ എത്തിച്ചേരുവാൻ സാധിക്കാറില്ലല്ലോ ഒ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് പണം ഇല്ലാത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തി കുട്ടികൾ കൂടി സ്കൂളിലേക്ക് കടന്ന് പോകുമ്പോൾ ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അവരുടെ നിത്യേന സ്കൂളിൽ പോകാനുള്ള ചെലവുകൾ ബസ്സ് ഫീസ് സ്കൂളിൽ മറ്റ് ഫീസുകൾ കാരണം അവരുടെ വിദ്യാഭ്യാസം തന്നെ ക്രമം മുടങ്ങുവാൻ കാരണമായി തീരുന്നു യാത്രാസൗകര്യങ്ങൾ ദൂരം കൂടുതലുള്ളതനുസരിച്ച് ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ദൂരെ നടന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥാഹജങ്ങ്യളിലായിരിക്കും അവരുടെ വീടൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എത്തിപ്പെടുന്ന നിരന്തരമായി സ്കൂളിൽ പോകുന്നത് കുറഞ്ഞു വരികയാണ് ദൂ അസൗകര്യങ്ങളുണ്ട് വീട്ടിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണവും അവർ അങ്ങനെ നിരന്തരമായ സ്കൂളിൽ എത്താത്ത അവസ്ഥ വരുന്നു പിന്നെ മഴ കാറ്റ് നമ്മളുടെ കാ മറ്റ് കാലാവസ്ഥ വേണ്ടി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങൾ വരുമ്പം നന്നായി വെള്ളപ്പൊക്കം വരുമ്പം ഇതൊക്കെ സ്കൂളുകളിൽ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ നിന്നും സ്കൂള്ലേക്ക് സ്കൂളിൻ്റെ പ്രാധാന്യം എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കി വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അധ്യാപകർ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ അധ്യാപകരായ സ്കൂളിൻ്റെ പ്രവർത്തകരായും തീരുന്നത് മക്കൾ എത്രത്തോളം സ്കൂളുകളെ സ്നേഹിക്കുന്നു അങ്ങനെ അവർ ഏതൊരു പ്രയാസഘട്ടത്തിലുണ്ടെങ്കിൽ കൂടിയും കടന്ന് വരും എന്നിരുന്നാൽ കൂടിയും അവരുടെ സാഹചര്യങ്ങൾ രക്ഷിതാക്കളിൽ ഉൾപ്പെടേല സ്കൂൾ അധികാരികളും അറിഞ്ഞവർ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ഒരുക്കുന്നതിലൂടെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്ക് ക്രമമായി സ്കൂളിൽ പോവാത്തതിൻ്റെ കഴിയാത്തതിൻ്റെ ഒരു കാരണം കൂടിയാണ് അവരുടെ ദൂരം അവരെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വലിയൊരു ദൂരം ആ ദൂരം അവർക്ക് കവർ കവർ കവറ് ചെയ്ത് വരുവാൻ വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യം കൂടിയാണ്